ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തേഴ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുപ്പത്തൊന്ന് ജനുവരി ടു ടു രണ്ടായിരത്തി ഇരുപത് ഏ പതിനാറ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്